ഹലോ ഷോപ്പ് ആൻഡ് സേവ് അല്ലേ എനിക്കാണെങ്കിൽ ഒരു മൂന്ന് സാധനം വേണമായിരുന്നു ഉണ്ടോ എന്നൊന്ന് നോക്കുമോ ജോമെട്രി ബോക്സ് ഇല്ലേ അത് അത് ഏതൊക്കെയാണ് ഉള്ളത് അവിടെ

ആ ക്ലാസ്സ്മേറ്റ് എത്രയാണ് ഇരുനൂറ്റമ്പത് ആ അത് ഒരെണ്ണം വേണേ പിന്നെ കളർ പെൻസിൽ വേണമായിരുന്നു ഉണ്ടല്ലോ ആ അത് ഏ എ എ ആ ഇരുപത്തിനാല് ഷേഡിൻ്റെ എത്ര രൂപയാവും നൂറ്റിയൻപത് അല്ലേ ആ അപ്പം അതൊരെണ്ണം വേണം പിന്നെ ഏ ആ ഒരു ഒരെണ്ണം ഒരു പാക്കറ്റ് പിന്നെ എ ഫോർ ഷീറ്റിൻ്റെ പേപ്പർ ഇല്ലേ ആ പാക്കറ്റ് തന്നെ നൂറ് എത്ര എണ്ണം ഉള്ളതൊക്കെ ആണുള്ളത് ആ നൂറ് ആ നൂറ് ഷീറ്റിൻറേത് ആ നൂറ്റി ഇരുപത് അപ്പം എത്രയാവും എല്ലാം കൂടെ വേറെ ഒന്നും വേണ്ട അപ്പം ഇതൊന്ന് എടുത്ത് വെച്ചേക്കുമോ അ ഞാൻ സുനിതയാണ് ഞാൻ ഇടയ്ക്ക് അവിടെ വരുന്നതാണ് ആ ആ ഞാൻ ഒരു പത്ത് മിനിറ്റിനകത്ത് വരാമേ ആ ശരി